ആ മലയാളത്തിലെനിക്ക് അനേകം വാക്കുകളിഷ്ടമാണ് നന്മ സമാധാനം സഹായം ഇതുപോലത്തുള്ള കുറേ വാക്കുകളെനിക്കിഷ്ടമാണ് അതിലിപ്പോൾ നന്മയേക്കുറിച്ച് പറയാൻ കഴിയുവാണെങ്കിൽ നന്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നേലൂടെ എനിക്കും ഒരു സഹായം ലഭിക്കും അതിപ്പോൾ നമുക്കിപ്പോൾ മറ്റുള്ളവർക്കൊരു നന്മ ലഭിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്ത ആൾക്കാരും നമ്മളെ സഹായിക്കാനും ഒക്കെ വേറുണ്ട് അതു നമ്മൾക്കൊക്കെ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അതിപ്പം സഹായമെന്ന വാക്കുകളാണേപ്പോലും നമ്മൾ മറ്റുള്ളവർക്കെന്തു സഹായം അവർക്കെന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും അതിലൊക്കെപ്പോയവർക്ക് സഹായം ചെയ്ക അതിലൂടെ അവർക്ക് സന്തോഷവാകും മറ്റുള്ളവർക്ക് സമാധാ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിലൂടെ എനിക്ക് സന്തോഷമാകും പിന്നെ പിന്നെ മറ്റൊരു വാക്കെന്നു പറയുന്നത് പുഞ്ചിരിയാണ് ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പം അവരുടെ മനസ്സിലായാലും മുഖത്തായാലും പുഞ്ചിരി വിടരുന്നതു കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ താങ്ങായിട്ട് പോകുമ്പോൾ അവർ ലാസ്റ്റ് പുഞ്ചിരിയ്ക്കയും അതിലൂടെ നമ്മൾക്കും ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം എന്റെ ജീവിതത്തിലായാലും ഒത്തിരി സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എന്റെ ജീവിതത്തിന് ഒത്തിരി വിഷമങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായാലും അല്ലാതെ മറ്റുള്ള ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല രീതിയിലും എനിക്ക് പല സഹായങ്ങളും നന്മകളും ഇങ്ങോട്ടും കിട്ടിയിട്ടുള്ളതാണ് നമ്മളെങ്ങോട്ട് ഏതു രീതിയിൽ പ്രവർത്തിക്കുന്നോ അതുപോലെതന്നെ നമ്മൾക്ക് തിരിച്ചും കിട്ടത്തുള്ളൂ നമ്മളിപ്പം മറ്റുള്ളവർക്ക് നന്മയെ നന്മയായാലും സഹായമായാലും ഒക്കെ നം നമ്മൾ മറ്റുള്ളവർക്കൊരു താങ്ങായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ നമ്മുടെ കൂടെ കാണാത്തുള്ളു ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോടു നമ്മൾ ദേഷ്യമായിട്ടും ഒത്തിരി അഹങ്കാരത്തോടെയും കാര്യങ്ങളൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് നമുക്കൊത്തിരി സഹായവും നന്മ സമാധാനം അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ നമുക്കുണ്ടാകത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് മരണം വരെ സമാധാനം ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ടു നന്മ ചെയ്യുകയും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ സന്തോഷങ്ങളും സ സന്തോഷങ്ങളിൽ മാത്രമല്ല സങ്കടങ്ങളിലും ഏതു രീതിയിലും നമ്മൾ മറ്റുള്ളവരുടെ കൂടി നിന്നാൽ മാത്രമേ നമ്മൾക്കിങ്ങോട്ടും ആ രീതിയിലുള്ള ഒരു സഹായങ്ങൾ നമുക്ക് കിട്ടത്തുള്ളു മറ്റുള്ളവരുടെ ജീവിതത്തിലവരുടെ പട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും അവർക്ക് നല്ല രീതിയിൽ സാമ്പത്തിക പരമായിട്ടായാലും ഒത്തിരി വിഷമങ്ങളനുഭവിക്കുന്ന സ സന്ദർഭങ്ങളാണ് നമ്മളാ സമയത്തൊക്കെ മറ്റുള്ളവർക്കൊരു താങ്ങായിട്ട് നിൽക്കാൻ മറ്റുള്ളവർക്കൊരു സഹായമായിട്ട് നിൽക്കാൻ അങ്ങനെ അവരുടെ ജീവിതത്തിലൊരു പുഞ്ചിരി നമ്മൾ കാരണം വിടർത്തുക അതു തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ആ ഒരു പ്രാ പ്രഥമമായൊരു കാര്യമെന്നു പറയുന്നതു തന്നെ